ആ ആ ഞാൻ എൻ എൻ്റെ പേര് സ്മൃതി എന്നാണ് ഞാനിപ്പോൾ വിളിച്ചത് ഈ മ മറ്റേ വര ഇടാത്ത ബുക്സ് ഉണ്ടല്ലോ അത് ഒരു ഒരു പൈൽ ആയിട്ട് വാങ്ങുമ്പോൾ എത്ര രൂപയാവും എനിക്കൊരു ഇരുപത് ബുക്സ് വേണം വരയിടാത്തത് ആ അതെ ഇല്ല വലുതാണ് വ വലിയ കിംഗ് സൈസ് ബുക്ക് ആണ്

ഓ ഒരു ബുക്കിന് അറുപതാണല്ലേ ഓക്കെ ആ അപ്പോൾ ഇത് ഇങ്ങനെ ഇരുപത് ബുക്ക് ആയിട്ട് വാങ്ങുമ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ അതോ യഥാർത്ഥ പൈസ തന്നെ തരേണ്ടി വരുമോ ആ ആ

ഓക്കെ ഓക്കെ ആ ആ

ഓ ഓക്കെ അപ്പോൾ ആ ഈ ബുക്സ് പോയിട്ട് എനിക്ക് രണ്ട് നമ്മുടെ സെറ്റ് ആയിട്ട് പെൻ പേന കിട്ടുമല്ലോ രണ്ട് ആ മൂന്ന് ആ മൂന്ന് സെറ്റ് പേനയുടെ ഇതും കൂടെ ആ ബ്ലൂ കളർ ബ്ലൂ കളർ പെനയും കൂടെ ആ ആ അത് ഒരു സെറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് വാങ്ങുമ്പം എത്ര കാണും ഒരു പാക്കറ്റിൽ പത്തെണ്ണം അല്ലേ ആ അപ്പോൾ ഒരു മൂന്ന് അത് അഞ്ച് രൂപയുടെ അഞ്ച് രൂപയുടെ പേന അഞ്ച് രൂപയുടെ പേന ഒരു മൂന്ന് അങ്ങനെ ആണെങ്കിൽ ഒരു മൂന്ന് പാക്കറ്റ് അപ്പോൾ മുപ്പതെണ്ണം കാണുമല്ലോ അതിൽ ആ വേറെ ഒന്നും വേണ്ട ഇത്രയും ഇതുമതി ബുക്സും ഇരുപത് ബുക്സും ഈ പേനയും

ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ആ

ഓക്കെ ആ ഞാൻ വന്ന് വാങ്ങിക്കോളാം ഓക്കെ ആ ശരി ശരി ആ ഞാൻ അത് വന്ന് മേടിച്ചോളാം ആ ഇന്ന് ഇന്ന് എത്ര മണി വരെ ഷോപ്പ് കാണും ഏഴ് മണി വരെ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ആ ആ അപ്പം അവിടെ വന്ന് ഞാൻ മേടിച്ചോളാം ആ താങ്ക് യു